സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം എല്ലാ വിദ്യാർത്ഥികളും ഉന്നത വിദ്യാഭ്യാസം പിന്തുടരുകയോ കുടുംബ ബിസിനസിൽ തുടരുകയോ അല്ലെങ്കിൽ അവരുടെ പ്രദേശത്ത് ജോലിക്ക് പോകുന്നുണ്ടോ എന്ന് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ തീർച്ഛയായിട്ടും ഉണ്ട് കാരണം എൻ്റെ നാട്ടിൽത്തന്നെ അല്ലങ്കിൽ നമ്മുടെ നാട്ടിൽത്തന്നെ എല്ലാവരുംതന്നെ പ്രത്യേകിച്ച് കേരളത്തിൽ എല്ലാവരുംതന്നെ പ്ലസ് റ്റു അല്ലെങ്കിൽ കഴിഞ്ഞ് ഒരു എമ്പത് ശതമാനത്തോളം ആൾക്കാരും ഉപരിപഠനത്തിനായിട്ട് പോവുന്നുണ്ട് അതായത് പത്ത് കഴിഞ്ഞാൽ പ്ലസ് വൺ പ്ലസ് റ്റൂലേക്കും പ്ലസ് വൺ പ്ലസ് റ്റു കഴിഞ്ഞാൽ ഡിഗ്രി കോഴ്സ്സ്കളിലേക്കും ഡിഗ്രി കമ്പ്ലീറ്റ് ചെയ്ത ആൾക്കാർ ചുരുക്കമാണെങ്കിലും ഇപ്പോൾ ചുരുക്കമല്ല എങ്കിലും അത്യാവശ്യമാൾക്കാർ കമ്പ്ലീറ്റ് ആക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ കഴിഞ്ഞ ഒരു പത്ത് ഇരുപത് കൊല്ലമായിട്ട് എല്ലാവരുംതന്നെ പണ്ടത്തെ കാലത്തെ പോലെ അല്ല നമ്മുടെ അപ്പനമ്മയെപ്പോലെയല്ല ഇപ്പത്തെ കാലത്ത് ഉള്ള എല്ലാ പിള്ളേരും തന്നെ ഉപരിപഠനത്തിനായിട്ട് എല്ലാവരും പോകുന്നുണ്ട് അതുപോലെത്തന്നെ കുടുംബ ബിസിനലേക്കിറങ്ങുന്നവർ ഇപ്പോൾ എൻ്റെ കേസ്സ് തന്നെ പറയുകയാണെങ്കിൽ ഞാൻ തന്നെ എൻ്റെ ബിസിനസ് ഇപ്പം ഞാൻ ബീ ബി എ യാണ് പഠിക്കുന്നത് ബീ ബി എ പഠിച്ച് കഴിയുമ്പംതന്നെ ഞാൻ വാപ്പിച്ചിയുടെ ബിസിനസ്സിലേക്കിറങ്ങാനൊള്ളൊരു പ്ലാനിൽതന്നെയാണ് ഞാനും നിൽക്കുന്നത് നമുക്ക് ടെക്സ്റ്റൈൽ ഷോപ്പ് ആണ് അതിലേക്ക് ഇറങ്ങാൻ തന്നെയാണ് ഞാനും നിൽക്കുന്നത് എന്താ സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറയുമ്പത്തേക്കും ഇപ്പത്തെ എല്ലാ കുട്ടികളിലും അതായത് ഒരു രണ്ടായിരത്തിന് ശേഷമുള്ള അല്ലെങ്കിൽ രണ്ടായിരത്തി രണ്ടായിരത്തിന് ശേഷം ജനിച്ച എല്ലാ കുട്ടികളിലുംതന്നെ ഒരു ഡിഗ്രി ലെവൽലുള്ള എല്ലാ വിദ്യാഭ്യാസങ്ങളും അവർ നേടിയിട്ടുണ്ട് അതിൽ ഒരു എഴുപതോളം ശതമാനം ആൾക്കാരും ഡിഗ്രി വിദ്യാഭ്യാസം പാസ് ആയവരും അതിൽത്തന്നെ അമ്പത് നാൽപ്പത് ശതമാനം ആൾക്കാരും വിദേശ ഉപരിപഠനത്തിന് അതായത് പീ ജി കോഴ്സുകളിലേക്ക് ചേരുകയും ചെയ്തിട്ടുണ്ട് അതുപോലെത്തന്നെ ജോലിക്ക് പോകുന്നവർ ഡിഗ്രി പഠനം കഴിഞ്ഞിട്ട് പലതരം പ്ലേസ്മെൻറ്റ്കളും പല കോളേജ്കളും നൽകുന്നുണ്ട് ആ പ്ലേസ്മെൻറ്റുകളെല്ലാം അറ്റൻറ്റ് ചെയ്ത് എല്ലാവരും പ്ലേസ്മെൻറ്റ്സ്സ് അക്യൂറ് ചെയ്തിട്ട് പുതിയ ജോലികളിലേക്കും അവിടുന്ന് അടുത്ത കമ്പനികളിലേക്ക് പുതിയ ജോലികൾ തേടി പോകുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും അതായത് ഇപ്പോൾ എൻ്റെ ക്ലാസിൽ പഠിക്കുന്നവരാണെങ്കിൽത്തന്നെ ഞാൻ എൻ്റെ സീനിയേഴ്സ് ആണെങ്കിൽത്തന്നെ അവരൊരു നാപ്പതോളം പേർക്ക് തന്നെ പ്ലേസ്മെൻറ്റ് കിട്ടി നാൽപ്പതോളം പേര് പ്ലേസ്ഡ് ആയിട്ടുണ്ട് ഓരോ കമ്പനീസിലായിട്ട് അപ്പം ജോലി സാധ്യത ഇപ്പം വളരെ കുറഞ്ഞ് കൊണ്ടിരിക്കുകയാണെന്നും അതേ അതിലുപരി തന്നെ പ്ലേസ്മെൻറ്റ്കൾ നല്ല കോളേജ്കൾ കൊടുക്കുന്നത് കൊണ്ടും കുറേ ആൾക്കാർ അതിലേക്ക് പ്ലേസ്ഡ് ആകുന്നുണ്ട് അതുപോലെത്തന്നെ ഉപരിപഠനം എന്ന് പറയുന്നത് ഒരു മനുഷ്യന് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് പഠനം അല്ലെങ്കിൽ വിദ്യാഭ്യാസമെന്ന് പറയുന്നത് അത് പിന്തുടരേണ്ടത് അവരുടെ മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ് അവരെ അതിൽ പിന്തുടരിപ്പിക്കുക എന്നുള്ളത് ഒറ്റയടിക്ക് പ്ലസ് റ്റു വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ബിസിനസ്സിലോട്ട് അല്ലെങ്കിൽ ജോലിക്ക് വിടാതെ ഉപരിപഠനം നടത്തി ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞ് അവർക്കിഷ്ടം ഉള്ളത് പഠിക്കാൻ കൊടുത്ത് അത് കഴിഞ്ഞിട്ട് അവരെ ഇതിലോട്ട് വിടുക എന്നിട്ട് അവിടെ നിന്നും അവർ അക്യൂറ് ചെയ്യുന്ന നോളഡ്ജും അവരുടെ വിദ്യാഭ്യാസം മൂലമുള്ള ജോലികൾ അവർ ഏറ്റെടുക്കുകയും ആ ജോലികൾ വളരെ വൃത്തിയായിട്ട് പഠിക്കുകയും സാലറികൾ അക്യൂറ് ചെയ്യുകയും ചെയ്യുകയാണ് അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതലായിട്ട് ആവശ്യം ഉള്ളത് അതുപോലെത്തന്നെ കുടുംബ ബിസ്നസ്സ് ഇപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു ഒരുപാടധികം ജോയിൻറ്റ് ഫാമിലി ജോയിൻറ്റ് ഹിന്ദു ഫാമിലീസ് ഉണ്ട് അവർക്ക് എല്ലാവർക്കുംതന്നെ കുറേ പേർക്ക് ബിസിനസ്സ്കൾ ഉണ്ട് ഇപ്പോൾ നമ്മുടെ അവസ്ഥയെടുത്ത് നോക്കുകയാണെങ്കിൽത്തന്നെ കേരളത്തിൽ ഒട്ടനവധി ബിസിനസ്സുകളുണ്ട് ഇവരുടെ ഇപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ബിസിനസ്സ് മിക്കതും തന്നെ ഒന്നെങ്കിൽ അതിൻ്റെയൊരു എക്സ്റ്റൻഷൻ എന്നുള്ള രീതിൽത്തന്നെ കുറച്ച് പേര് കൊണ്ടുപോകുന്നുണ്ട് അല്ലെങ്കിൽ അതിൽത്തന്നെ വളർന്ന് പോകുന്ന കുറേ അധികം കുട്ടികൾ ഉണ്ട്